ഇപ്പോൾ മുടിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടിയിൽ നമക്ക് പലതരത്തിലുള്ള നാട്ടുവൈദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മുടെ ഇവിടെ തന്നെ ഇഷ്ടംപോലെ തരത്തിലുള്ള മുടിക്ക് തഴച്ചു വളരാൻ വേണ്ടിയിട്ടുള്ള പല രീതിയിലുള്ള പ്രക്രിയകൾ നമുക്ക് യൂട്യൂബ് ചാനൽ ആണെങ്കിലും അല്ലാത്ത രീതിയിലാണെങ്കിലും നമുക്ക് അവൈലബിളായിട്ടുണ്ട് കാരണമെന്തെന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിൽ ചെയ്യാൻവേണ്ടി പറ്റും ഇപ്പോൾ കറ്റാർവാഴയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ മുടിക്കും നമ്മളെ നല്ല ഷൈനിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് അത് നമ്മൾ ഈ ഉള്ളിയൊക്കെ ഇട്ടിട്ട് അടിച്ചിട്ട് നമ്മൾ അതായത് മിക്സിയിൽ ഇട്ട് അടിച്ച് അതിൻ്റെ ജെല്ല് മാത്രം അതായത് കറ്റാർവാഴയുടെ ജെല്ല് മാത്രം എടുത്ത് നമ്മൾ തലയിൽ തേച്ചു കഴിഞ്ഞാൽ മുടി നല്ല ഷൈനിങ് ആയിട്ടും നല്ല രീതിയിലുള്ള വളർച്ചയ്ക്കും കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ് അപ്പോൾ അത് ഒന്നാമത്തെ ഒരു കാര്യമാണ് പിന്നെ നമ്മളീ അതായത് ചെറുപയർ പൊടിയൊക്കെ നമ്മൾ എന്തു ചെയ്യുക നല്ല രീതിയിലുള്ള അരച്ചിട്ട് പൊടിക്കുക പൊടിച്ചതിനു ശേഷം നമ്മളതിനകത്തേക്ക് കഞ്ഞിവെള്ളം ആഡ് ചെയ്തിട്ട് ഇത് രണ്ടും കൂടി നമുക്ക് തലയിൽ തേച്ച് കഴിഞ്ഞാൽ താരനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നല്ലതായിരിക്കും നമുക്ക് മുടിക്ക് നല്ല നമ്മുടെ തലയ്ക്ക് തലയോട്ടിക്ക് നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ വരുന്നതിനനുസരിച്ച് മുടി നന്നായിട്ട് വളരാനുള്ള ചാൻസുകൾ കൂടുതലാണ് അങ്ങനെ പല രീതിയിലുള്ള എണ്ണകൾ അതായതിപ്പം നമ്മളിപ്പോൾ വീട്ടിൽ തന്നെ കാച്ചി ഉണ്ടാക്കുന്ന എണ്ണകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ പലതരം പലതരം അതായത് ചെടികൾ കാര്യങ്ങളൊക്കെ ഇട്ടുകഴിഞ്ഞാൽ നല്ല ആ ആ ഔഷധ സസ് ഔഷധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മുടിക്ക് വളരാനുള്ള ചാൻസ് കൂടുതലാണ് അങ്ങനെയുള്ള പലതരം വൈദ്യങ്ങളൊക്കെ ഇഷ്ടം പോലെയുണ്ട് അതൊക്കെ നമ്മൾ പ്രയോഗിക്കാറുമുണ്ട്